നമസ്ക്കാരം ആ ഒരു ഇൻ ആ ഒരു പുതിയ ഇൻഷുറൻസിൻ്റെ ഇതായിട്ട് വന്നതാണ് പുതിയൊരു ഇൻഷുറൻസ് വന്നിട്ടുണ്ട് നമ്മക്ക് നമ്മക്ക് നല്ലൊരു പാക്കേജിങ്ങാണ് ഏജയവർക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെത്തെയൊരു ഇൻഷുറന്സാണ് നമുക്ക് ബെനിഫിറ്റുണ്ടാകുന്ന പോലെത്തെ ഒരു ഇൻഷുറന്സാണ് അപ്പോൾ ആറുപത് അറുപത്തിയഞ്ചു വയസുവരെയാണ് എജ്ലിമിറ്റാവും അപ്പോൾ നമ്മുക്കെല്ലാവർക്കും അത്യാവശ്യം അറുപതു വയസിനുമുകളിൽ ഉള്ളവർക്കും യൂസ് ചെയ്യാൻപറ്റുന്ന പോലെത്തെ നല്ലൊരു ഇന്ഷുറന്സാണ് നമുക്ക് കവറേജോക്കെ കിട്ടുന്നൊരു ഇൻഷുറന്സാണ് ഫാമിലിയാണ് ആ നിങ്ങൾക്ക് ഫാമിലി ഇൻഷുറൻസ് ഇപ്പോൾ നാ നാലാൾക്കാണ് ഇപ്പോൾ ഇതില് നിങ്ങൾക്കിപ്പോയിതില് ഉണ്ടാകാൻ പറ്റുക അപ്പോൾ ഇതിപ്പോൾ അടവ് വരുന്നത് രണ്ടായിരം രൂപയാണ്

അല്ലല്ല ആ ആറുമാസം കുടുമ്പോൾ രണ്ടായിരം രൂപയാണ് അടവുവരുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപപോലെ നാലാൾക്ക് രണ്ടായിരം അങ്ങനെ രണ്ടായിരം രൂപവെച്ചിട്ടാണ് അടവുവരുന്നത് ആറുമാസം കുടുമ്പോൾ അപ്പോൾ ഒരു വർഷത്തിലേക്ക് നാലായിരം രൂപ അടവുവരും അത് ഇപ്പോൾ അതിപ്പോൾ ഇരുപത് വർഷമാണ് ഇയർ ഇരുപതിയറിൻ്റെയാണ് ഫുൾ ഫാമിലിപാക്ക് ഇത് വരുന്നത് അടവുവരുന്നത് ഇരുപത് വർഷമിത് കണ്ടിന്യൂസായിട്ട് അടക്കണം ലൈഫ്ടൈം ഇൻഷുറന്സാണ് നിങ്ങള് എത്രകാലമാണോ ലൈഫുള്ളത് അത്രയുംകാലം നമുക്ക് ഈ പാക്കേജ് വാലുവെബിലായിരിക്കും അപ്പോൾ ഇരുപതുവർഷം നമ്മൾ ഇത് കണ്ടിന്യൂസായി അടച്ചോണ്ടിരിക്കണം അപ്പോൾ ഇതിലിപ്പോൾ കറക്റ്റായിട്ട് അടക്കണം അല്ല ഇത് ലാസ്റ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ആ ഈ ഒരുവർഷം കഴിഞ്ഞാലാണ് നമുക്കത് എടുക്കാണെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലൈഫ്ടൈം നമുക്കത് കൊണ്ടുപോകാം ഇരുപതുവർഷമാണ് അടവുവരുന്നത് അതുകഴിഞ്ഞിട്ട് നമ്മുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ചേരണമെങ്കിൽ ഇതേപോലെ എല്ലാവരുടെയും ആധാർകാർഡ് വേണം പിന്നെ അതേപോലെ ഇവർക്ക് ഇവരുടെയെന്താണ് ബാങ്ക് പാസ്സ്ബുക്കിൻ്റ കോപ്പി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റേഷൻകാർഡിൻ്റെയൊരു ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ജനന സെർട്ടിഫിക്കറ്റും വേണം ഓക്കേ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കോപ്പി ആ ഇതിൻ്റെയെല്ലാത്തിന്റേം കോപ്പി അത് നാളെയോ മറ്റന്നാളോ ആയിട്ടുതന്ന നമ്മുക്ക് പെട്ടെന്നുതന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്നുതന്നെ ഇൻഷുറൻസ് ചേരാൻ പറ്റും പിന്നെയിപ്പോ ഇതിൻ്റെയെല്ലാത്തിന്റേം കോപ്പിയും പിന്നെ രണ്ടു ഫോട്ടോയും വേണം ഇപ്പോൾ നിയർബൈ രണ്ടുമാസത്തിൽ എടുത്തേ അല്ല ആരെങ്കിലും ഒരാൾ വന്നാലും മതിയാകും നമ്മുക്കിപ്പോൾ രണ്ടുഫോട്ടോ എല്ലാവരുടെയും ഈ രണ്ടു ഫോട്ടോയും വേണം പിന്നെ നമുക്കിതിപ്പോൾ ഇതൊക്കെയായിട്ടു നേരിട്ട് ഒന്നിലെങ്കിൽ ഞാൻ അങ്ങട് വരാ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതേ വഴി ഈ വഴിക്ക് പോണമെന്നുണ്ട് അപ്പോൾ കയ്യിൽ തന്നാൽ മതി തന്നു പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം ഒക്കെയൊക്കെ ശരി അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഓക്കേ അതൊക്കെ എടുത്തുവെച്ചാൽ മതി ശരി